നമ്മൾ മത്സ്യബന്ധനത്തിനായി പോകുന്ന ടൈമിൽ നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് ബോട്ടുകൾ അങ്ങനെയില്ല നമ്മളപ്പോൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് പോകുന്നത് വാടകയ്ക്ക് എടുക്കാനായി അധിക മിതമായ പൈസ ചിലവുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടെന്നു വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ബോട്ടുകളാണ് നമുക്കതാണ് നല്ലത് അങ്ങ് ഉൾക്കടലിലേക്ക് സ്പീഡിൽ പോയിട്ട് വരാനപകടങ്ങൾ എന്തുണ്ടെങ്കിലും സ്പീഡിലേക്ക് സ്പീഡിൽ കരക്കെത്താനൊക്കെ ആവശ്യമായ സംഭവമതാണ് ഭാര്യയുടെ താലി വരെ പണയം വെച്ചിട്ടാണ് നമ്മൾ ബോട്ട് വാടകയ്ക്ക് എടുക്കുന്നത് നടുക്കടലിൽ വെച്ച് ബോട്ട് കേടായതുണ്ട് അതിൻ്റെ പൈസ ചിലവ് കേടായി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ പുറത്തു നിന്നൊരു വേറെ ബോട്ട് വിളിച്ചിട്ടാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കുന്നത് അതുകൂടാണ്ട് തന്നെ നമ്മൾ ബോട്ട് കിട്ടാത്ത ടൈമുകളിൽ തോണിയിലാണ് പോകല് സ്പീഡ് ബോട്ട് കിട്ടാത്ത ഒരു ബോട്ടും കിട്ടാത്ത ടൈമിൽ നമ്മൾ തോണിക്ക് പോയിട്ടാണ് മത്സ്യബന്ധനം നടത്താറ് അങ്ങനെയൊക്കെ ഒറ്റ കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതലായി നമ്മൾ മത്സ്യ ബന്ധനത്തിന് സ്പീഡ് ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് അതാണ് നമുക്ക് സേഫും മെച്ചപ്പെട്ടതുമായ കാര്യങ്ങളതാണ് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ പോയി വലയെറിഞ്ഞ് മീനെ പിടിക്കുന്നു